ഹലോ സാറേ ഞാൻ ഒരു പേഷ്യൻ്റാണേ എനിക്ക് ഒന്നാമത് ഹെഡ് പെയിൻ കൂടുതലുള്ള ഒരാളാണ് കുറച്ചു ദിവസമായിട്ട് എനിക്ക് ഒരാഴ്ച്ചയായിട്ട് ഭയങ്കര ചുമയും തലവേദന ഒക്കെയാണ് എന്താണെന്ന് അറിയാൻ പറ്റുമോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതാണ് ഇന്ന് റിസൾട്ട് വരുമെന്നാണ് പറഞ്ഞത് ഒരു രക്ഷയും ഇല്ല എന്താ ചെയ്യുക പിന്നെ മൂക്കൊക്കെ ഇങ്ങനെ ജലദോഷം പിടിച്ചിട്ട് ചെറുതായിട്ട് ബ്ലഡ് അടക്കം വരുന്നുണ്ട്

യധു കൃഷ്ണ പതിനേഴ് വയസ്സ്

പൊഴവേൽ പൊഴവേൽ പൊഴവേൽ ആ പൊഴവേൽ പൊഴവേൽ പൊഴവേൽ പോയിരുന്നു ആ ഒരാഴ്ച്ച ഇങ്ങനെ വീട്ടിൽത്തന്നെ ഒറ്റയ്ക്കായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത് അപ്പം കുറച്ച് റിക്കവറാവുമ്പം ഹോസ്പിറ്റലിൽ പോക്കായിരുന്നു ഞാൻ ഇതിന് മുന്നേ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഒരു മാര്യേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയതായിരുന്നു മാസ്ക് അവിടെ ചെന്നതും പൊട്ടി പോയിരുന്നു

അ ഇന്ന് ടെസ്റ്റ് ഞാൻ ഇന്നലെ ചെയ്തിരുന്നു റിസൾട്ട് ഇന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത് ആ ആയിക്കോട്ടെ ആ ഓക്കെ താങ്ക് യു ആ ആയിക്കോട്ടെ ഓക്കെ സർ